ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ബൈക്കുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിയെന്ന നിലക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു അവസരങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഗതാഗത പ്രശ്നങ്ങൾ മോശം കാലാവസ്ഥ പ്രത്യേകിച്ച് പറയാനുള്ളത് റോഡുകളിലുള്ള കുണ്ടും കുഴിയും അതുപോലെത്തന്നെ ചില ഭാഗത്ത് ഇടുങ്ങിയ റോഡ് കാരണങ്ങളാൽ തിരിച്ചു പോകേണ്ട അവസരങ്ങൾ വരെ വന്നിട്ടുണ്ട്

കാടുകളിലൂടുള്ള യാത്രകൾ കാട്ടിലെ മൃഗങ്ങളുടെ അക്രമങ്ങളും അതുപോലെത്തന്നെ അവരുടെ അറ്റാക്കുകളൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വഴികളും നമ്മുടെ സമൂഹത്തിലുണ്ട് തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കാതെ ഇതെല്ലാം ഗൗരവമായ രീതിയിൽ എടുക്കേണ്ടത് കൊണ്ട് തന്നെയാണ് നാം സംസാരിക്കുന്നത് ഒരു ബൈക്ക് യാത്രികനെന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് പുറത്തിറങ്ങുമ്പോൾ ബൈക്കിൽ പോകുന്നവർക്ക് ധാരാളം രീതിയിലുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളുമുണ്ട് പ്രത്യേകിച്ച് കാറിൽ പോകുന്നവരെ പോലെയല്ല ബൈക്ക് യാത്രികർ എന്നുള്ളത് അവർക്ക് നേരെ ഡയറക്റ്റായിട്ട് അവരുടെ ബോഡിയിലേക്ക് തന്നെയാണ് ഈവൻ പൊല്യൂഷനായാലും അതുപോലെത്തന്നെ മറ്റ് എന്തായാലും ബൈക്കിൽ പോകുന്നവർക്ക് അവരുടെ ബോഡിയിലേക്കാണ് അതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയെല്ലാം നേരിട്ട് ചെല്ലുന്നു കാറിൽ പോകുന്ന സമയത്ത് കുണ്ട് കുഴികളിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൾ ഇളക്കുന്നു അല്ലെങ്കിൽ എഫെക്ട്റ്റ് ചെയ്യുന്ന രീതിയൊന്നും അല്ല ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത് അതുപോലെത്തന്നെ പ്രത്യേകിച്ച് ബൈക്ക് പോകുന്ന സമയത്ത് ഇടുങ്ങിയ റോഡുകളിലൂടെ പോകുമ്പോൾ ബൈക്കിനാണ് കൂടുതലായി സുഖം പോകാൻ പക്ഷെ ബൈക്കിന് പോലും പോകാൻ കഴിയാത്ത പല ഭാഗത്തേക്കുമുള്ള റോഡുകൾ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം വ്യക്തികൾ അതിൻ്റെ പണി ചെയ്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു